സാറേ എനിക്ക് ഭയങ്കര പനിയാണ് വയറ്റിൽ നിന്ന് പോക്കും ഛർദിയും ആണ്

പുറത്ത് നിന്ന് കഴിച്ചിട്ടില്ല സാറേ വീട്ടിൽ നിന്ന് തന്നെയാണ് ഭക്ഷണം എല്ലാം കഴിച്ചത് പനി തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി ഇല്ല അതല്ലേ ഡോക്ടറുടെ അടുത്ത് സാറിന്റെ അടുത്ത് വന്നത് ആ പനി ലേശം കുറവുണ്ട് പിന്നെ വയറ്റിൽ നിന്ന് പോക്കാണ് നിൽക്കാത്തത് ആ തല കുളിക്കാവോ സാറേ പിന്നെ ജലദോഷം ഇല്ല

ഓ ആയിക്കോട്ടെ

ഇല്ല ഇല്ല അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇല്ല സാറേ ഭയങ്കര പനിയാണ് വയറ്റിൽ നിന്ന് പോക്കും

ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല അങ്ങനത്തെ കുഴപ്പം ഒന്നും ഇല്ല ഹ്മ്മ് ഹ്മ്മ് ഹ്മ് ഇല്ല രണ്ട് ദിവസം ആയിട്ടേ ഉള്ളൂ ആ അത് ഇന്നലെയാണ് തുടങ്ങിയത് ഇല്ല ഇല്ല ഇല്ല

ആ അതെ അതെ ആ ഓ ശരി

ആ ആ സാറ് സാറ് എഴുതി തരു എന്നാൽ ശരി

ആയിക്കോട്ടെ ആയിക്കോട്ടെ

ആ കിട്ടി കിട്ടി ഓ കുടിച്ചു സാറേ ഓ കൊടുത്തിട്ടുണ്ട് അത് ഒര് അരമണിക്കൂറ് കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞു